ബൈക്ക് നമ്മള് പരിപാലിക്കുന്നത് എങ്ങനെയാണെന്ന് അധികം പരിപാലനം കൊടുക്കണ്ടത് ഇല്ലല്ലോ നമുക്ക് അത്യാവശ്യം പെട്രോളടിക്കുക അതിൻ്റെ ടയറ് ടയറാണ് പ്രത്യേകം ടയറൊക്കെ മാറി ഇടുക ഓയില് മാറുക ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ടയറ് അതാണ് മെയിനായിട്ട് പിന്നെ ബ്രേക്കിങ്ങും കൺട്രോളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം ബൈക്കിൻ്റെ ബ്രേക്കിങ്ങും ക്ലച്ചും ഗിയർ ആക്സിലേറ്ററും ഇതൊക്കെ നമ്മള് നോക്കണം ഇനി ടയറിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പ്രധാനായിട്ട് നമ്മള് നോക്കണ്ടത് കാരണം ടയറ് നല്ല നമ്മുടെ ഇവിടുത്തെ റോഡൊക്കെ ഇപ്പം നല്ല മിനുസമുള്ള നല്ല റോഡാണ് അപ്പം നമ്മളൊന്ന് ബ്രേക്ക് പിടിച്ചാൽ അതവിടെ നിൽക്കണമെന്നില്ല നല്ല ടയറൊക്കെ ആണേൽ അവിടെ നിൽക്കും പക്ഷേ തേഞ്ഞ ടയർ ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് പിടിക്കും ബ്രേക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ കാര്യമില്ല ഉരഞ്ഞങ്ങ് പോവും നമ്മളിടിക്കും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്

പരിധിയിലല്ലായിരിക്കും വണ്ടി ചിലപ്പോൾ ഓടുന്നത് അപ്പം അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മളെന്തേലുമൊക്കെ ആലോചിച്ചോണ്ടൊക്കെ വണ്ടി ഓടിക്കുവാണെങ്കിൽ അപകടങ്ങള് വരാൻ ചാൻസ് ഉണ്ട് നമ്മള് നമ്മുടെ ശ്രദ്ധ ഫുള്ളും ഡ്രൈവിങ്ങ് ഡ്രൈവിങ്ങിലായിരിക്കണം വണ്ടി ഓടിക്കുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മിക്കപ്പോഴും ഉണ്ടാവേണ്ടത് നമ്മള് ദീർഘ ദീർഘയാത്രയൊക്കെ പോകുമ്പോളാണ് പ്രത്യേക ബൈക്ക് നമ്മള് ഒരേ ഇരിപ്പിലൊന്ന് ഒരു മണിക്കൂറൊക്കെ കഷ്ടി ആകുമ്പോൾ ഒരു മണിക്കൂറല്ല ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നമു ഒരു മടുപ്പാവു ഈ ഒരേ നമ്മുടെ നടുവേദനയും പ്രത്യേകിച്ച് നമുക്ക് പ്രായമൊക്കെ ഉള്ളവരാണ് പിന്നെ പറയണ്ടല്ല ആ ഒരു ഇരുപ്പ് ഇരുപ്പിൽ നമുക്ക് നടു നടുവിനൊരു വിഷയം വരും അതുകൊണ്ട് നമ്മള് പാതി സ്ഥലങ്ങളിൽ പോയി ഒന്ന് റെസ്റ്റെടുക്കണം നമ്മളൊന്ന് നടുവൊക്കെ നിവർത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റെടുത്തിട്ട് നമ്മളൊന്ന് വിശ്രമിച്ചിട്ട് നമ്മള് പിന്നേം വണ്ടി ഓടിക്കുവാണേൽ ആ ഒരു കുഴുപ്പം വരുന്ന നമ്മള് ചായ ഒക്കെ കുടിച്ച് പയ്യെ വിശ്രമിച്ച് പയ്യെ പോയാൽ മതി എന്തിനായി ധൃതി ധൃതി ഒരേ ഇരുപ്പില് ഈ ബൈക്ക് യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മള് ഒരേ ഇരിപ്പ് പെട്ടെന്നെങ്ങനേലും ആ സ്ഥലത്ത് എത്തണമെന്ന് പറഞ്ഞ് ആ ഒരേ ഇരിപ്പില് നമ്മള് നല്ല ദീർഘ ദൂരെ യാത്ര പോകുവാണെങ്കിൽ നമുക്ക് നടുവിന് നല്ല വേദന നമുക്കത് പിന്നീട് പിന്നീട് നമ്മള് വരും ജീവിതത്തിൽ നമുക്കത് അപകടമാകാൻ സാദ്ധ്യതയുണ്ട് നമുക്ക് ശാരീരിക പ്രശ്നങ്ങള് പിന്നെയും വരാൻ ചാൻസുണ്ട് അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പറ്റുന്ന വിധം നമുക്ക് ബസ്സിന് പോകുക അതിന് മാത്രം ദൂരമുണ്ടേൽ ബസ്സിന് പോകുക അല്ലെങ്കിൽ കാറുണ്ട് കാറാണ് നല്ലത് അല്ലേ ബസ്സിന് പോകുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ബൈക്ക് യാത്ര ദൂരെ ദീർഘ ദൂര യാത്രങ്ങളിൽ നമുക്ക് ബൈക്ക് യാത്ര അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ടു വീലർ ബൈക്കിനൊക്കെയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക